ഹലോ ആ ഇപ്പോൾ എനിക്ക് ഷുഗർ ആണ് ഞാൻ പിന്നെ നേരത്തെ ഈ ഒരു ഡോക്ടറെയാ കണ്ടുകൊണ്ടിരുന്നത് കയ്പ്പയിൽ ഉള്ള അതുകൊണ്ട് എനിക്ക് ഇടയ്ക് ഇടയ്ക്ക് ഷുഗറ് താണ് പോവും വല്യ വിഷമതകൾ ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഇപ്പം ഞാൻ അത് മാറി വേറെ ഒരു ഡോക്ടറെയാ കാണിച്ചേക്കുന്നത് എന്നാലും ഇടയ്ക്ക് ഒക്കെ എനിക്ക് ക്ഷീണവും തളർച്ച ഒക്കെ ഉണ്ട് അതിന് അവിടുന്ന് ഡോക്ടറുടെ മരുന്ന് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലിയർ ആയിട്ട് എന്തെങ്കിലും ഇനി അധികം പറയാൻ ഉണ്ടെങ്കിൽ പറയാം മരുന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോൾ തളർച്ച ഇല്ല ചില സമയങ്ങളിൽ എനിക്ക് കണ്ടമാനം തളർച്ച പോലെ തോന്നും അപ്പോൾ ഞാൻ ആ ആ ഞാൻ അന്നേരം വിചാരിക്കും പിന്നെ ഞാൻ ഞാൻ ഗ്ലുക്കോമീറ്ററ് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് നോക്കും ഷുഗറ് താണതാണോയെന്ന് നോക്കും നോക്കുമ്പോൾ അതിൻ്റെ ആ അതിൻ്റെ അളവ് അറിയാം അല്ലെങ്കിൽ ഞാൻ ഷുഗറ് താണതാണെങ്കിൽ ഞാൻ അന്നേരം മധുരം ഉള്ള എന്തെങ്കിലും എടുത്ത് ആഹാരം കഴിക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പം ആ ആ അത് നോക്കുമ്പോൾ ഷുഗറ് കൊണ്ട് ആണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാകും ഷുഗറിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് അതിനകത്ത് കാണിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ആ ഷുഗറ് കൊണ്ട് ആണെങ്കിൽ അത് മനസ്സിലാകും അല്ലെങ്കിൽ പിന്നെ ഡോക്ടറോട് പറയാനെ നിവർത്തി ഉള്ളൂ അല്ലേൽ ഡോക്ടറെ നേരിൽ പോയി കാണുകയോ

ആ ആ

ആ ആ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇടയ്ക്ക് ഒക്കെ തലവേദന ഒക്കെ ഉണ്ടാവും അത് എനിക്ക് പ്രഷറും ഒക്കെ ഉണ്ട് അല്ല ആ ആ ഷുഗറിൻ്റെ അത് അല്ല അതുകൊണ്ട് ആ പിന്നെ പ്രഷറും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് പ്രഷറിൻ്റെ ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ വല്യതായിട്ട് എനിക്ക് പ്രഷർ ഷുഗർ അല്ലാതെ ആ പിന്നെ അതിന് എന്തെല്ലാം ആഹാരങ്ങൾ നിയന്ത്രിക്കണം അങ്ങനെ ഒക്കെ പറയുവാണേൽ നല്ലതാ മധുരം ഞാൻ തീരെ ഉപയോഗിക്കൽ ഇല്ല